കൃഷിക്കായിട്ട് ഇപ്പം നമുക്ക് കുറേ ഉപകരണങ്ങൾ ആവശ്യമാണ് കൈക്കോട്ട് കത്തി പിന്നെ ട്രാക്ട്ർ നിലം ഉഴുതെടുക്കാൻ പിന്നെ പണ്ടൊക്കെയാണെങ്കിൽ കാളപൂട്ടിക്കൊണ്ട് അങ്ങനെ നിലമുഴുത് മറിക്കുന്നത് ഇപ്പോൾ അതൊക്കെ എല്ലാത്തിനും മെഷീനല്ലേ ഇങ്ങനെ ട്രാക്ട്റും ഒരു അങ്ങനത്തെയൊക്കെ സംഭവങ്ങളല്ലേ എല്ലാം വന്നത് പിന്നെ കൈക്കോട്ടുകൊണ്ട് കൈക്കോട്ട് കൃഷിക്കാർക്ക് കൈക്കോട്ട് അത്യാവശ്യമാണ് നിലം കൊത്തി മറിച്ച് കിളച്ചെടുക്കാനൊക്കെ കൈക്കോട്ട് വേണം പിന്നെ തെങ്ങിന് തടം കെട്ടാൻ കൊത്താൻ അതിനൊക്കെ വേണം കൈക്കോട്ട് പിന്നെ കത്തി കാട് വെട്ടിത്തളിച്ച് കേടുവന്ന വാഴ അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ വെട്ടാൻ കത്തി ആവശ്യമാണ് പിന്നെ പിന്നെ തെങ്ങ് കയറുന്നത് പണ്ടൊക്കെ കയറുകൊണ്ട് തളപ്പുണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ആളുകൾ തെങ്ങിന്മേൽ കയറിയിരുന്നത് ഇപ്പം പിന്നെ മെഷീനാണ് ആ മെഷിനുകൊണ്ട് പെട്ടെന്ന് കയറി തേങ്ങയിട്ട് ഇറങ്ങും അവർ മെഷീൻ വച്ച് വലിച്ച് കയറി ഉണ്ടാക്കി പെട്ടെന്നാവും മറ്റേതിൻ്റെ മാതിരിയുള്ള പ്രയാസം ഇല്ല പണ്ടത്തെ പോലത്തെ പിന്നെ ഉഴുത് മറിക്കുന്നതും കാളേനെ കൊണ്ടുപോവുമ്പോൾ കാളേനെ വെച്ച് ഉഴുത് മറിക്കുന്നതിനേക്കാളും സുഖമാണ് ഇപ്പോൾ ട്രാക്ട്റാവുമ്പോൾ കുറച്ച് സമയം മതി അതിന് മറ്റേത് ഇന്നിപ്പം ട്രാക്ട്റുകൊണ്ട് പത്ത് മിനിറ്റോണ്ട് എടുക്കുന്നത് അത് അവർ ദിവസംവച്ച് എടുത്താലും തീരില്ലായിരുന്നു അങ്ങനെയാണ്